ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ആപ്പെന്നു പറയുന്നത് ഒന്ന് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമ് വാട്സപ്പ് അതുപോലെ ഓരോ ഗൈയിം ആപ്പുകൾ എന്നിവയൊക്കെ എന്നിങ്ങനെ ഒരുപാട് ഒരുപാട് ആപ്പുകൾ ഇന്ന് ഓരോരുത്തരും ഉപയോഗിക്കുന്നുണ്ട് സ്മാർട്ട് ഫോണിൻ്റെ ഗുണവശം എന്നു പറയുന്നത് നമുക്കെവിടെ നിന്നും ആരോടുവേണമെമെങ്കിലും ചാറ്റു ചെയ്യാം അതുപോലെ വീഡിയോ കോള് ചെയ്യാം നമുക്കിപ്പോൾ നമ്മുടെ അടുത്തല്ലാതെ മറ്റു ജില്ലകളിൽ മറ്റു രാജ്യങ്ങളിലുള്ള ആൾക്കാരെ വരെ നമുക്ക് വീഡിയോയിൽ വീഡിയോ കോളിലൂടെ നേരിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അത് വലിയൊരു ഗുണമാണ് അതുപോലെത്തന്നെ കുറഞ്ഞ ചിലവിൽ നമ്മുക്കിപ്പോൾ ഒരു മാസത്തേക്ക് ഒരു ഇരുന്നൂറു രൂപയ്ക്കോ മുന്നൂറു രൂപയ്ക്കോ നെറ്റും ഫോണു വിളിക്കുന്നതും കൂടി കയറ്റിയാൽ നമുക്ക് എത്ര വേണമെങ്കിലും നെറ്റ് കയറ്റിയാൽ എത്ര വേണമെങ്കിലും നമുക്ക് ആരെ വേണമെങ്കിലും വിളിക്കുകയും പറയുകയും ചെയ്യാം അതുപോലെത്തന്നെ ദോഷവശം എന്നത് ഇപ്പോൾ ആൾക്കാർക്ക് അടുത്തുള്ള ആൾക്കാരോടുവരെ പെരുമാറ്റം കുറഞ്ഞു വരുകയാണ് അടുത്തുള്ള വീട്ടിലുള്ള അച്ഛനും അമ്മയും നോക്കാനോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനോ സമയമില്ലാതെ ആയിട്ടുള്ള ആയിട്ട് വരികയാണ് അതുപോലെത്തന്നെ ദുരുപയോഗം ചെയ്യുന്നുമുണ്ട് ചെറിയ കുട്ടികളൊക്കെ ഒരുപാട് ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഹണി ട്രാപ്പ് അതൊക്കെ ചെയ്യുന്നുണ്ട്